നമ്മളെ നാട്ടില് സ്ത്രീകൾ നിത്യേനെ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് വയ്ക്കുന്നത് ഒന്നാമത്തത് ലിംഗ സമത്വം ഇല്ലായ്മ എന്നത് തന്നെയാണ് ലിംഗ സമത്വം ഇല്ലായ്മ എന്ന് വച്ചാല് എല്ലാ പല കാര്യങ്ങൾക്കും പുരുഷന് ഒരു കൂടുതൽ വില നൽകുക സ്ത്രീകൾ ഒന്നുമല്ല അവര് താഴ്ന്ന ഒരു രീതിയാണ് അവർക്ക് ശക്തിയില്ല അവരെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി പിന്നെ വീട്ടിലൊക്കെ ഉള്ള ഗാർഹിക പീഡനങ്ങൾ അത് മറ്റൊരു വെല്ലുവിളി തന്നെയാണ് സ്ത്രീകള് കല്യാണം കഴിച്ചു പോയതിന് ശേഷം ഉണ്ടാകുന്ന അവരനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണത് പിന്നെ ഉള്ളതെന്ന് വച്ചാല് സ്ത്രീധനത്തിൻ്റെ വെല്ലുവിളി സ്ത്രീധനം കുറവ് കൊടുത്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കാരണം എത്രയോ പെൺകുട്ടികൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുപോലെ വസ്ത്രത്തിൻ്റെ പേരില് പഠനത്തിൻ്റെ പേരില് നീ പെൺകുട്ടിയല്ലേ നീയെന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഇതൊക്കെ സ്ത്രീകളിപ്പോഴും നിത്യേനെ നേരിടുന്ന ഒരു വെല്ലുവിളികൾ തന്നെയാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തില് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പങ്കിൽ വന്ന മാറ്റങ്ങൾ എന്ന് വച്ചാല് പണ്ടത്തെക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്ത്രീകളിപ്പോൾ വോട്ട് ചെയ്യാൻ തുടങ്ങി പണ്ട് വോട്ടിങ്ങില് വരെ സ്ത്രീകൾക്ക് സ്ത്രീകൾ കുറവായിരുന്നു പിന്നെ പഠനത്തിൻ്റെ കെയ്സിലായാലും സ്ത്രീകള് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമം കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇന്ത്യൻ ഇന്ത്യൻ സ്ത്രീ ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടെന്നും അവർക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിലും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ട് പക്ഷെ ചില ആളുകളുടെ കേസില് അതില്ല അത് ഇപ്പോൾ ഇന്ത്യൻ ഇവർക്കൊന്നും ചെയ്യാനാവില്ല അത് അവരുടെ കുടുംബാംഗങ്ങൾക്കുതന്നെ ചെയ്യണം ഒക്കെ അവര് എന്താ പരാതി നൽകണം പോലീസ് സ്റ്റേഷനില് അങ്ങനെയൊക്കെയേ പറ്റത്തുള്ളൂ തുല്യ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇല്ല ചില കാര്യങ്ങളില് ഇല്ല എന്നുതന്നെയാണ് എൻ്റെ ഒരിത് എൻ്റൊരഭിപ്രായം